ഇപ്പോൾ എൻ്റെ ജീവിത കാലത്ത് സംഭവിച്ച സാങ്കേതിക മാറ്റങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് ആ സമയങ്ങൾലൊന്നും ഫോൺ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പം അത് നല്ല രീതിയിലുള്ള നമുക്ക് ആൾക്കാരുമായിട്ട് ഇടപഴകാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ സഹായിച്ചിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ നമ്മൾ ഇപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടികളോ കാര്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അവിടെ പോയിട്ട് പങ്കെടുക്കാനും ആ കാര്യങ്ങൾക്കൊക്കെ നല്ലതായിരുന്നു അപ്പം ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഫോണിലും ലാപ്ടോപ്പ് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഒക്കെ ആണ് എല്ലാവരും വന്നിരിക്കുന്നത് അപ്പം സാ സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം പിള്ളേർക്ക് പഠിക്കാനാണെങ്കിൽ പോലും നെറ്റിൽ സർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കിട്ടുന്നതാണ് അപ്പം മൊബൈൽ ഫോണിൽ എല്ലാവരും നല്ല രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ സാങ്കേതിക വിദ്യ എന്ന് പറയുമ്പോൾ നല്ല രീതിയിലുള്ള മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് കാരണം എന്താണ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പം എല്ലാ കാര്യവും ബില്ലിങ്ങിലും ഇപ്പോൾ നമ്മളിപ്പം ഒരു അക്കൗണ്ടിങ്ങ് എടുക്കുവാണെങ്കിൽ അക്കൗണ്ടിങ്ങ് തന്നെ ഒരു കടയിലത്തെ അക്കൗണ്ടിങ്ങ് തന്നെ എല്ലാം ബിൽ കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടർ ആണ് ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ